സമൂഹമാധ്യമങ്ങൾ ഇപ്പോൾ വളരെ ഏറെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹമാധ്യമങ്ങള് വഴി ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനായാലും ഒത്തിരി കാര്യങ്ങൾ കാണാനായാലും പുതിയ അറിവുകൾ നേടാനായാലും സമയം കണ്ടെത്താനും പറ്റുന്നുണ്ട് കുട്ടികൾ അതുകൊണ്ട് കൂടുതൽ നേരം ഫോണ് ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാല് കുട്ടികള് കുറേ കുറേ അധികം നല്ല അറിവുകള് കിട്ടുന്നുണ്ടെങ്കിലും കുറേ ദോഷവശങ്ങളും ഉണ്ട് ഓൺലൈൻ ഓൺലൈൻ വഴി നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു തന്നെ അധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടു പറ്റുന്നുണ്ട് സാങ്കേതികവിദ്യകള് ഇത്രയോന ഫോൺ ഫോൺ സാങ്കേതിക വിദ്യയിലേക്ക് അഡിക്റ്റ് ആയ ഒരു സാഹചര്യം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക ഇപ്പം ഇപ്പം എല്ലാ കഴിവുകളും എല്ലാ കുഞ്ഞുങ്ങള്ക്കും അവതരിപ്പിക്കാൻ ഒരു വേദി ഇല്ലാതിരിക്കുന്ന ഒരു തരത്തിൽ ഇപ്പോൾ ഈ സാങ്കേതികവിദ്യയിലൂടെ ഒത്തിരി അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുറേ കഴിവുള്ള കുഞ്ഞുങ്ങളെ പുറംലോകം അറിയുവാനും കുറെ കാര്യങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും ഒത്തിരി അവസരങ്ങൾ കിട്ടുന്നുണ്ട് സാമൂഹ്യമാധ്യമം ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട് നമ്മൾ വീട്ടിൽ ഇരുന്നു ചെയ്യുന്ന ജോലികൾ പോലും നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാത്ത ഓരോ ആഹാരം വയ്ക്കാൻ പോലും അറിയില്ലെങ്കിൽ നമക്ക് അതിനെ എന്തു സംശയം ഉണ്ടെങ്കിലും അത് തീര്ക്കാന് നമുക്കിപ്പോൾ ഈ ഓൺലൈനിലൂടെ പഠിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഓരോ വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാമൂഹ്യമാധ്യമം എല്ലാ കുഞ്ഞുങ്ങൾ മുതല് മുതിർന്നവർ വരെ ഇപ്പോള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കലാപരമായിട്ട് കുഞ്ഞുങ്ങൾ ഒത്തിരിയേറെ ഇപ്പോഴത്തെ കുട്ടികൾ മുന്പന്തിയില് തന്നെയാണ് പണ്ടുള്ള കാലത്ത് ഇത്രയും സാങ്കേതികവിദ്യ ഉപയോഗിക്കാത്തതുകൊണ്ട് കുഞ്ഞുങ്ങള്ക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിവുണ്ടായിരുന്നില്ല ഇപ്പോൾ ഡാൻസിനായാലും എല്ലാം നൃത്തം പഠിക്കാനും പാട്ടു പഠിക്കാനും ഓരോ എല്ലാ കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ സാധിക്കുകയും അതുവഴി കുഞ്ഞുങ്ങള്ക്ക് സമയം കണ്ടെത്തി അത് പഠിക്കുവാനും പറ്റുന്നുണ്ട് എല്ലാ വിധത്തിലും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ ഓരോ തലമുറയ്ക്ക് നല്ല നല്ല പുരോഗതിയാണ് ഉണ്ടാകുന്നത് സാങ്കേതികവിദ്യയിലൂടെ സമൂഹമാധ്യമങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ അവരുടെ കഴിവുകള് പ്രകടിപ്പിക്കുവാനും സാധിക്കുന്നുണ്ട് ഓൺലൈൻ ഓൺലൈനിലൂടെ പഠിച്ചു കുഞ്ഞുങ്ങൾ നല്ല ഉന്നതവിജയം നേടുവാനും ഇപ്പോൾ എല്ലാവര്ക്കും വീട്ടിൽ നിന്നും സമയം കണ്ടെത്തി ഓണ്ലൈനിലൂടെ പഠിക്കാനും വിദേശരാജ്യങ്ങളില് പോയി പഠിക്കുവാനുമുള്ള അവസരം കിട്ടുന്നുണ്ട് സമൂഹമാധ്യമം കൂടുതല് പ്രദര്ശനമാകുന്നുണ്ട് എങ്കിലും കുറെ കൂടി കുറേ ദോഷവശങ്ങളും കൂടി ഇതിൽ നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഈ മാധ്യമങ്ങളിൽ മാത്രം അഡിക്റ്റ് ആവുകയും നമ്മളൊരു ഹാൻഡ്ബുക്ക് കൈകാര്യം ചെയ്യുന്നപോലെയൊരു ബുക്ക് വായിക്കാനോ അല്ലെങ്കില് പ്രകൃതിയോടിച്ചിരി ഇണങ്ങി ചേരുവാനോ കുട്ടികള്ക്ക് സമയം കിട്ടുന്നില്ല കൂടുതൽ കുട്ടികൾ ഈ ഫോണിന്റെ മുമ്പിൽ സമയം ചിലവഴിക്കുകയും അവർക്കു ഇഷ്ടംപോലെ കാര്യങ്ങൾ അതില്നിന്ന് മനസ്സിലാക്കാനും പഠിക്കുവാനും പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ കുഞ്ഞുങ്ങൾ ഈ ഓൺലൈൻ മാധ്യമത്തിൽ മാത്രം മുഴുകിയിരിക്കുകയാണ് അതുകൊണ്ട് അതിന് ഒരു ഒരു നാണയത്തിന്റെ രണ്ടുവശംപോലെ എല്ലാ ഒരു ദോഷവശവും ഉണ്ട് ഒരു നല്ലവശവും ഉണ്ട് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹമാണ് അവടെ വന്ന് പഠിക്കാന് പറ്റാത്ത കുഞ്ഞുങ്ങള്ക്കും അല്ലെങ്കിൽ സമയം കണ്ടെത്തി പഠിക്കാന് പറ്റുന്നുണ്ട് അതുകൊണ്ട് ടീച്ചര്മാര്ക്കും സാറുന്മാര്ക്കും അതിന്റേതായ ബെനഫിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ അധികം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാന് പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും ഒരു പഠനത്തിന്റെ ഭാഗമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഉപകാരമാണ് സമൂഹമാധ്യമം അത് അത് നമുക്ക് എല്ലാ അറിവുകളും കിട്ടും കൊറോണ സമയത്തൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞുങ്ങള് ഈ ഫോണിനകത്തേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഓണ്ലൈന് ക്ലാസ്സുകള് തുടങ്ങി ആ പഠനത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഈ ഫോണിലേക്കു തോനെ നേരം ഉപയോഗിക്കാൻ പഠിച്ചു പിന്നെ ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ അത് അവർക്കു വിട്ടൊഴിയാന് വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് പേയേക്കുവാണ് അവര്ക്ക് ഇപ്പോൾ ഫോണില്ലാത്തൊരു ജീവിതമില്ല ഒരുവിധത്തില് അവര്ക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിലും ഒരു തരത്തില് അവർക്ക് ഒത്തിരി ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട് അവർ പരസ്പരം സംസാരിക്കുവാനുള്ള സമയം കണ്ടെത്തുക പോലുമില്ലാതെ ഈ മാധ്യമങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു പിന്നെ ഒത്തിരി കാര്യങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്കു പറ്റാത്ത കുറേ കാര്യങ്ങള് അവർക്കു ഒഴിവുസമയങ്ങളിൽ അല്ലെങ്കിൽ കുറേ കുക്കിങ്ങിന്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്ത് വിഷയത്തെക്കുറിച്ചും പഠിക്കാനായാലും അവർക്കു ഏറ്റവും എളുപ്പം ആയി നമുക്ക് ഇപ്പോൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ എല്ലാ എല്ലാ അമ്മമാരും വീട്ടിൽ പഠിക്കാൻ വേണ്ടി അവർക്കു സാധിക്കുന്നുണ്ട് അത്രയും എളുപ്പമായ രീതിയിലാണ് ഇപ്പോൾ എല്ലാ ഓൺലൈൻ സംവിധാനങ്ങളും അവർ നിർമ്മിച്ചിരിക്കുന്നതും അത് കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നതും അത്ര ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് അതിനാൽ എല്ലാവര്ക്കും പറ്റും